ഞങ്ങളുടെ പ്രദേശത്ത് കുമരകത്താണ് ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ വരാറുള്ളത് അവിടെ കുമരകത്ത് ബീ ടൂറിസത്തിന് പ കുമരകം പക്ഷി സങ്കേതമുണ്ട് പിന്നെ ബോട്ടിംങ്ങുമാണ് പ്രധാനമായിട്ടുള്ളത് ആ അവിടെ പക്ഷി സങ്കേതത്തിൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ ഹോട്ടലുകൾ ഒക്കെ ഉണ്ടാവും തന്നെയല്ല അവിടെ തൊട്ടടുത്തുള്ള വീട്ടുകാരെല്ലാം ഹോം സ്റ്റേ സൗകര്യങ്ങളൊരുക്കിയിട്ടുണ്ട് അവർ വീടുകളിൽ റൂംസും സ ഭക്ഷണ ഭക്ഷണവും അവർ വിദേശ സഞ്ചാരികൾക്ക് നൽകാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വി ഐ പികൾ ഈ കുമരകം ഹോം സ്റ്റേയിൽ ഹോം സ്റ്റേയിലും ഹോട്ടലുകളിലും വന്ന് താമസിക്കാറുണ്ട് പക്ഷേ ഞങ്ങളുടെ പ്രദേശത്ത് സൗജന്യമായിട്ടുള്ള ധർമ്മശാലകളും താമസസ്ഥലങ്ങളും ഒന്നും ഉണ്ടാവാറില്ല ഇങ്ങനെ വീട്ടമ്മമാർക്ക് ഒക്കെ ഒരു വരുമാനമായിട്ട് അവരെല്ലാം നടത്തുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു ഹോട്ടൽ അവിടെ ഉള്ളതെന്ന് പറയുന്നത് റ്റാജ് ആണ് അവിടെയാണ് വി ഐ പികളായിട്ടുള്ള ഇപ്പോൾ എൽ കെ അദ്വാനിയെ പോലെയുള്ള ആൾക്കാരും തന്നെയല്ല മറ്റു പല വി ഐ പികളും അവിടെ വന്നിട്ട് താമസിക്കാറുണ്ട്